ഇപ്പ മലയാളം സംസാരിക്കാത്ത ആളുകളും ആളുകളുമായിട്ട് അവർക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ ഭാഷയും അറിയണമെന്നില്ല അപ്പം നമ്മൾ മലയാളികൾക്ക് കൂടുതലായിട്ടും മലയാളവും ഇംഗ്ലീഷും കൂടിക്കലർത്തിയാണ് കൂടുതലായിട്ടും സംസാരിക്കാൻ അറിയുള്ളൂ അപ്പം ആ രീതിയിൽ സംസാരിച്ച് നോക്കും അങ്ങനെയെങ്കിലും സംസാരിച്ച് അവർക്ക് ഒരു ഐഡിയ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കിട്ടില്ല ചില ചില ആൾക്കാർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല അപ്പോൾ ഈ ഓ അവരുടെ ഏതാണോ ഭാഷ അത് നമുക്കറിയാവുന്നത് പോലെ നമ്മളും സംസാരിക്കുക അവർക്കറിയാവുന്നത് പോലെ അവരും ഇങ്ങോട്ട് സംസാരിക്കുമ്പം നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയും ഉപയോഗിക്കാം പിന്നെ ഇംഗ്ലീഷ് മാത്രം അറിയുന്നവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചുകഴിഞ്ഞാൽ ആശയവിനിമയം നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ കഴിയും ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും അവർ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും അതായതിപ്പോൾ ഇപ്പോൾ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെയുണ്ടാവും അപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് ഈ ഇത് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ അവർക്ക് തിരിച്ച് കേൾക്കാനുള്ള ഒരു ഇത് കേൾക്കാനോ വായിക്കാനോ ഉള്ള ഒരു സംഭവം ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ആശയവിനിമയം ഒക്കെ നടത്താൻ പറ്റുന്നുണ്ട്